ഗ്രാമങ്ങളില് വൈദ്യുതി എങ്ങനെ എഫിഷ്യന്റ് ആയി യൂസ് ചെയ്യാമെന്നുവെച്ചാല് ഇപ്പം കറന്റ്ലി മോസ്റ്റ്ലി ഗ്രാമങ്ങളിലൊക്കെ മറ്റ് ഈ പോസ്റ്റും ലൈറ്റും ലൈക്ക് അങ്ങനത്തെ അറിയാമല്ലോ കേബിൾപരമായ വൈദ്യുതിയാണ് ഇപ്പോള് ഓടിക്കൊണ്ടിരിക്കുന്നത് കുറെക്കൂടെ ഡെവലപ്ഡായ സ്ഥലങ്ങളില് സോളാർ പാനൽസും അങ്ങനത്തെ സോളാർ പാനൽസ് ഒരു വളരെ ഒരു വൈദ്യുതി അതായത് വളരെ എഫിഷ്യന്റായ പവർ സേവിങ് പവർ ലൈക്ക് ഭയങ്കരം എഫിഷ്യന്റ് ആയൊരു സംഭവമാണ് ലൈക്ക് എലക്ട്രിസിറ്റി എങ്ങനെ നല്ല എഫിഷ്യൻറ്റായി യൂസ് ചെയ്യാമെന്നുള്ള ഒരു സംഭവമാണത് അപ്പോള് ഗ്രാമങ്ങളില് എങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാല് സോളർ പാനൽസ് ഇപ്പോള് ഓരോ വീടുകളില് ഓരോ വീടുകളിലും ഇപ്പം സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കില് രാപകൽ സമയത്ത് നമുക്ക് സൂര്യനിൽ നിന്നുള്ള ഒരു പവർ അല്ലെങ്കില് ആ ഒരു എനർജി നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ ഇപ്പം പറമ്പുകളുണ്ടെങ്കില് പറമ്പുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് വളരെ വലിയൊരു എഫിഷ്യന്റ് ആയൊരു സംഭവമാണ് ഈ സോളാർ പാനൽസ് എന്നുപറഞ്ഞാല് കോസ്റ്റ്ലി ആയിരിക്കും ലൈക് ഫസ്റ്റ് ഇൻസ്റ്റാളൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല പൈസയൊക്കെ ആകുമായിരിക്കും പക്ഷേ എന്നാലും ഇതാണ് ഞാൻ മെയിൻലി ലൈക് ഇപ്പോള് വൈദ്യുതി എങ്ങനെ എങ്ങനെ എഫിഷ്യൻറ്റായി യൂസ് ചെയ്യാമെന്നുള്ള രീതിയില് പറയുകയാണെങ്കില് ഇതൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് മറ്റെ സോളാർ പാനൽസൊക്കെ ഇൻസ്റ്റാള് ചെയ്ത് സോളാർ എനർജി നമ്മൾ വീടുകളിലെത്തിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പുകളിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നല്ല എഫിഷ്യൻറ്റായി യൂസ് ചെയ്യാം മറ്റെ ഇപ്പോള് സാധാ കറണ്ട് കെ എസ് ഇ ബി കറണ്ട് യൂസ് ചെയ്യുകയാണെങ്കില് നല്ല രീതിയില് അതായത് ഓരോ വീടുകളുടെയും യൂസേജ് അനുസരിച്ചിരിക്കും അപ്പോള് നല്ല നല്ല രീതിയിൽ അത് കറണ്ട് ചാർജ് അല്ലെങ്കില് ഇലക്ട്രിസിറ്റി ബില് വരാൻ ചാൻസ് ഉണ്ട് അപ്പോഴത് കുറയ്ക്കാൻ അത് നല്ല രീതിയില് കുറയാനും പിന്നെ നമ്മുടെ യൂസേജ് നല്ല രീതിയില് കൂട്ടാനും പറ്റിയൊരു സാധനമാണ് സോളർ പാനൽസ് ഇൻസ്റ്റാള് ചെയ്യുകയെന്ന് പറഞ്ഞാല് അതൊരു അതൊരു ഭയങ്കരം ഇനോവേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ വേറെ എനർജി വൈദ്യതി അതായത് എലക്ട്രിസിറ്റി എത്തിക്കുക എങ്ങനെയാണെന്ന് വെച്ചാല് നാച്ചുറലായ റിസോഴ്സസ് യൂസ് ചെയ്യുക നാച്ചുറൽ റിസോഴ്സസ് അതായത് മാൻ മെയ്ഡ് അല്ലാതെ നാച്ചുറലായ അതായത് നാച്ചുറലായ മെറ്റൽസ് ഉണ്ടല്ലാ കോപ്പര് അയൺ ഇതൊക്കെ കണ്ടക്ടേഴ്സാണ് എലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ് ആണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടുകൾ നമ്മുടെ ലൈക്ക് ഇപ്പം ലാൻഡ് ഉണ്ടെങ്കിൽ ലൈക്ക് കൃഷിയുണ്ടെങ്കില് അത് നമുക്ക് നല്ല രീതിയില് എന്താണ് യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാല് എനിക്കത് വ്യക്തമായി അറിയില്ല പക്ഷേ ഇങ്ങനത്തെയൊരു ഒരു ഐഡിയ ഒരു വീഡിയോ കണ്ടായിരുന്നു കോപ്പർ വയേഴ്സും അയേൺ വയേഴ്സും ലൈക്ക് എലക്ട്രിസിറ്റി കണ്ടക്റ്റ് ചെയ്യുന്ന മെറ്റൽസ് യൂസ് ചെയ്ത് രാവിലെ സൂര്യൻ്റെ എനർജി കൊണ്ട് പിന്നെ വാട്ടർ വാട്ടർ എനർജി അല്ലെങ്കില് വിൻഡ് എനർജി കൊണ്ട് എഫിഷ്യൻറ്റായിട്ട് യൂസ് ചെയ്യാം എഫിഷ്യൻറ്റായിട്ട് ഇങ്ങനെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് അത് പ്രയോഗിക്കാമെന്നുള്ള വീഡിയോസും അങ്ങനത്തെ കുറെ വ്ളോഗ്സുമൊക്കെ ഞാന് കണ്ടിട്ടുണ്ട് അപ്പോള് ആ ഒരറിവുവെച്ചാണ് ഞാനിപ്പോള് പറയുന്നത് അത് ഈ കെ എസ് ഇ ബിയോ അല്ലെങ്കില് ഇങ്ങനെ ഈ ഗവർമെൻറ്റ് തരുന്ന ഈ കറണ്ട് അതിലൊക്കെയും നല്ല രീതിയില് ഞാൻ പ്രിഫര് ചെയ്യുന്നത് ഈ സോളർ പാനൽസും പിന്നെ എല്ലാം ഈ മെറ്റൽ നാച്ചുറൽ മെറ്റൽസ് അതായത് റിസോഴ്സസ് യൂസ് ചെയ്ത് എലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന